എൻ്റെ ജന്മനാട് തിരുവനന്തപുരമാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് എൻ്റെ ഓർമ്മകൾ തന്നെയാണ് ഇവിടെയുള്ള എൻ്റെ ഓർമ്മകൾ തന്നെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ് അപ്പം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുടുംബവും എൻ്റെ സ്കൂളും കോളേജസും എല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നാല് ഒര് വിഷമം വന്നാല് എനിക്ക് ഓടി ചെല്ലാനോ അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വന്നാൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ എനിക്കങ്ങോട്ട് പെട്ടെന്ന് ഒരു തുണയ്ക്ക് വേണ്ടി ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ തന്നെയുണ്ട് അപ്പം എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്കത് ഇത്രയും കംഫർട്ടബിളായിട്ട് ധൈര്യമായിട്ട് എനിക്ക് ഓടി ചെല്ലാൻ വേറെ ഒരു സ്ഥലം വേറെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്കത് പറ്റി പറ്റിയെന്ന് വരില്ല ആരും അങ്ങനെ ഉണ്ടായെന്ന് വരില്ല അതുപോലെ ഒത്തിരി ഓർമ്മകളുണ്ട് എനിക്ക് ഈ തിരുവനന്തപുരത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണത് പിന്നെ പറയുവാണെങ്കിൽ ഇപ്പം സ്ഥലങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ബീച്ചുകൾ എനിക്ക് വളരേ ഇഷ്ടായിട്ടുള്ള ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബീച്ചുകളില് പോകുമ്പഴാണ് ശംഖുമുഖവും കോവളവും വേളിയും അതുപോലെ പൂവാറിൽ ഒത്തിരി അഡ്വഞ്ചറസായിട്ടുള്ള കാര്യങ്ങള് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറേക്കൂടെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇപ്പം കുറേക്കൂടെ എനിക്ക് എന്താ പറയുക ഈയൊരു തി തിരുവനന്തപുരം ഇവിടന്ന് വിട്ടുപോവാൻ എനിക്കങ്ങനെ മനസ്സ് വരുന്നില്ല കാരണം ഞാൻ അത്രയ്ക്കും ഈയൊരു എൻ്റെ സ്ഥലം ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ അതുപോലെ മാനവീയം നമുക്ക് രാത്രി മൊത്തം ഒരു നൈറ്റ് ലൈഫ് ഇവിടെ ഉണ്ടാക്കി തന്നിരിക്കുകയാണ് നമുക്ക് മാനവീയം തുറന്ന് തന്നതിലൂടെ അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയും ചായ കുടിക്കുകയും കുടുംബ കുടുംബത്തോടെ പോവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളത് മോശമല്ലാതെ നല്ലതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മള് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എപ്പഴും ഓർമ്മകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം അതുപോലെ പ വേറെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ ആ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം തന്നെയാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഒരു ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളം കുളത്തിലെ മീനുകൾ ഞാൻ രാത്രികളിൽ അവിടെ പോയി ഇടയ്കൊക്കെ ഇങ്ങനെ പൊരി അങ്ങനത്തെ സാധങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ മീനുകൾക്ക് കൊടുക്കാറുണ്ട് അതും ഒരു ഒരു നല്ലൊരു അനുഭവമാണതൊക്കെ അപ്പോൾ ഇങ്ങനെ ഓരോ അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ ഈ സ്ഥലം എനിക്ക് ഏറ്റവും കൂടുതലും ഇവിടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടമായിട്ടുള്ള കാര്യവും എൻ്റെ ഈ എൻ്റെ ഈ സ്ഥലത്തെപ്പറ്റി തിരുവന്തപുരത്തെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങള് എൻ്റെ ഈ ഓർമ്മകൾ തന്നെയാണ് അപ്പം ഈ ശംഖുമുഖത്ത് പോകാനും രാത്രികളിൽ മാനവീയത്ത് പോകാനും രാത്രികളിൽ പേടിയില്ലാതെ ഇറങ്ങി നടക്കാനും പറ്റുന്ന ഒരു സ്ഥിതിയിൽ നമ്മുടെ തിരുവനന്തപുരം മാ മാറിയിരിക്കുന്നത് മാ മാറ്റിത്തന്നത് തന്നത് കൊണ്ടും ആണ് നമുക്ക് ഇത്രയും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നത്